പുതിയ പുതിയ പാചകവിദ്യകളെക്കുറിച്ച് അറിയാനായി കൂടുതലായും കാണുന്ന പരുപാടി എന്ന് പറയുന്നത് ആനീസ് കിച്ചണാണ് ആനീസ് കിച്ചൺ എന്ന് പറയുമ്പോൾ അതിൽ തനിനാടൻ വിഭവങ്ങളാണ് കൂടുതലും പങ്ക് വെക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഉള്ള വിഭവങ്ങൾ അതിനകത്ത് പങ്ക് വെക്കുന്നുണ്ട് നമുക്ക് അനുയോജ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യാൻ ആനീസ് കിച്ചൺ നമ്മളെ സഹായം ചെയ്യുന്നുണ്ട്